ആ കം ഇൻ ആ പറയൂ എന്താ പേരെന്താണ് ആ ഓക്കെ ഓക്കെ ഓക്കെ കം ആൻഡ് സിറ്റ് ഓക്കെ ഓക്കെ ആ ആ എന്താ മിഥുല അല്ലേ ഓക്കെ ഓക്കെ എത്ര വയസ്സായി ഇരുപത്തൊമ്പത് വയസ്സായി ഓക്കെ ഓക്കെ എവിടെയാണ് വീടെവിടെയാണ് ചെറുതുരുത്തിയല്ലേ ഓക്കെ അപ്പോൾ എന്താ പ്രോബ്ലം ഡിപ്രഷൻ അത് അതെങ്ങനെ മനസ്സിലായി ഡിപ്രഷൻ ആണെന്ന്

ആ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഡെഫിനിറ്റ്ലി എല്ലാവരുടെ ലൈഫിലും പ്രോബ്ലെംസ് ഉണ്ടാവും നമ്മളുടെ വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് ഒബ്സ്റ്റക്കൾസും കാര്യങ്ങളൊക്കെയുണ്ടാവും സോ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് പിന്നെ നമുക്ക് പ്രോബ്ലെംസ് വരുന്ന സമയത്ത് അതിനെ ഫേയ്സ് ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി വരണം ഡിപ്രഷൻ അടിച്ച് ഇരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെയാണ് അത് ബാധിക്കുക ഓക്കെ ഇതിപ്പോൾ മെൻ്റലി നമ്മൾ ഡിപ്രസ്ഡ് ആയാലും ഫിസിക്കലി അത് കാര്യങ്ങളൊക്കെ നമ്മളെ എഫ്ഫെക്ട് ചെയ്യും ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നു വച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യുക ആ അക്സെപ്റ്റ് ചെയ്തിട്ടിപ്പോൾ മെഡിക്കേഷൻ എടുക്കേണ്ട കാര്യം ഒന്നുമില്ല ഈ ഈ ഏയ്ജില് ഈ ഏയ്ജല്ലെങ്കിൽ ഒരു ടീനേജേർസിനൊക്കെ ആകുമ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലി അവിടുന്നുണ്ടാകുന്ന എന്തെങ്കിലും വയലേഷൻ ഒക്കെ ആയിരിക്കും ഇപ്പം ഈ ഏയ്ജിൽ ഇപ്പോൾ തൻ്റെ ഏയ്ജിലുള്ളവർക്ക് എന്തായാലും ഒരു ജോബ് മാറ്റേർസൊക്കെ ആയിരിക്കും കൂടുതൽ കാണുക അപ്പോൾ ഇത് തനിക്ക് മാത്രം ഉണ്ടാകുന്നതല്ല ആക്ച്ച്വലി ഒരുപാട് ഈ ഏയ്ജിലുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അപ്പോൾ അതിനെയൊരു വിയേർഡ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല ആ പിന്നെ വരുന്ന സിറ്റുവേഷൻസൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെയൊന്ന് കാമും റിലാക്സും ഒക്കെ ആയിട്ടിരിക്കുക മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും ആ ഒരു ഡെയ്ലി ഒരു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സൊക്കെ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും മാക്സിമം എന്താണ് ഹാപ്പിനെസ്സ് തരുന്ന ആളുകളുടെ കൂടെ ഇരിക്കാൻ നോക്കുക പിന്നെ പാരന്റ്സിനെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ എന്നു വച്ചാൽ സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ആ ഓക്കെ അങ്ങനെയൊക്കെയാണ് പിന്നെ നിങ്ങൾക്കിനി ആരും ലിസൺ ചെയ്യാൻ ഇല്ലയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ യൂ ക്യാൻ ഡയരക്ട്ലി കം ഇൻ റ്റു മീ ഓക്കെ ഏഹ് ആ ഫ്രീ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല കുഴപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക ഓക്കെ വരിക വന്ന് സംസാരിക്കുക കുഴപ്പമില്ല ഒരു കുഴപ്പവുമില്ല കേട്ടോ ഇപ്പം മെഡിറ്റേഷൻ എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല ഓക്കെ ഓക്കെ അപ്പോൾ കാമും റിലാക്സും ആയിട്ടിരിക്കുക മെഡിറ്റേഷൻ ചെയ്യുക അതൊക്കെയാണ് ഇനി എന്തെങ്കിലും നല്ല ഭയങ്കര സിവിയർ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ ഓക്കേ ഓക്കെ